ഹലോ എലക്ട്രിസിറ്റി ബോർഡല്ലേ ഞാൻ ചിറവക്കിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ എൻ്റെ കൺസ്യൂമർ നമ്പറ് ഹലോ സാർ കേൾക്കുന്നുണ്ടോ ഇരുപത് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണേ എനിക്ക് കഴിഞ്ഞ മാസം എൻ്റെ ഞാനിവിടെ ഇല്ലായിരുന്നു ഒരു മാസം ഹസ്ബൻ്റിൻ്റെ ജോലിസ്ഥലത്തൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കറണ്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഒരു ഫോർ തൗസൻ്റ് എയ്റ്റ് ഹൻഡ്രഡ് ബില്ല് വന്നിട്ടുണ്ട് അതെന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ സാർ

ഓക്കേ ഓക്കേ ആ ബില്ലടച്ചു പക്ഷേ എന്നാലും നമുക്കിത്രയും ബില്ല് വരേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളാരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാലും മിനിമം ചാർജ്ജില്ലേ ഇതൊരു ഫോർ തൗസൻ്റ് സംതിങ്ങ് ബില്ല് വന്നിട്ടുണ്ടല്ലോ

ഓക്കേ ഓക്കേ താങ്ക് യു സാർ ഓക്കേ ഓക്കേ